ഞങ്ങള് ട്രിവാൻഡ്രം ശ്രീകൃഷ്ണസ്വാമിക്ഷേത്രത്തിൽ കുടുമ്പക്കാരെല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഞങ്ങൾക്ക് ഒരു ട്രാവലറ് വേണം ഏകദേശം പതിനാല്പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ട്രാവലറ് ആയിരിക്കണം പിന്നെ അത്യാവശ്യം മ്യൂസിക് സിസ്റ്റം വേണം അത്യാവശ്യം ഒച്ച ഉള്ള ഒര് മ്യൂസിക് സിസ്റ്റം വേണം പിന്നെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ പാട്ട് കേൾക്കാൻ വേണ്ടി യാത്രയ്ക്ക് ഇടയിൽ ട്രാവലിങ്ങിനിടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊരു മ്യൂസിക് സിസ്റ്റം വേണം പിന്നെ ഞങ്ങള് ശനിയായ്ച്ച വൈകുന്നേരം ഒരു നാല് മണി ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അത്കഴിഞ്ഞ് മണ്ടേ നാലുമണി ആകുമ്പം തിരിച്ച് വരും അപ്പോൾ രണ്ട് നൈറ്റും ഒര് ഡേയും അവിടെ ചിലവഴിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി ഇതിനായിട്ട് ഞങ്ങക്ക് ഒര് ക്യാബ് തയാറാക്കണം ഏതേലും ഒരു വണ്ടി തയ്യാറാക്കിത്തരണം അതിൻ്റെ അത്യാശ്യം ഡീറ്റേയ്ൽസ്സ് വാട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് തരുവാണേൽ ഉപകാരമായി